കല എന്നത് അനശ്വരമായ ഒരു ഒരു ബ്ലെസ്ഡ് ആണ് ദൈവത്തിൻ്റെ ഈ എല്ലാവർക്കും നൃത്തം ചെയ്യാൻ അറിയണമെന്നില്ല ഓൺലൈൻ നൃത്ത പരിശീലനം അതൊക്കെ എന്തണെന്ന് വച്ച ഒരു കുട്ടിക്ക് ഇ പ്പോൾ ട്യൂഷൻ ഫീസ് കൊടുത്തിട്ട് പുറത്ത് പഠിക്കുകയാണെങ്കിൽ നല്ല പൈസ ചിലവാവും മീൻസ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരു കുട്ടിയാണ് നല്ലോണം നൃത്തം ചെയ്യുന്ന ഒരാളാണ് അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പൈസ കൊടുത്തിട്ട് എന്താണ് പോകാൻ വേണ്ടി പറ്റില്ല ഓൺലൈൻ ആയിട്ട് ഒരു ഡാൻസ് ക്ലാസ് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നോക്കി ഒരു കുട്ടി അതിൻ്റെ കല ഇതാ കല ഉയർത്തിക്കൊണ്ട് വരുന്നത് അത് ഏറ്റവും ഒരു എന്താണ് പറയുക ആ ഒരു ചെറിയ ഒരു കാര്യമൊന്നുമല്ല ഒരു പൈസ കൊടുത്ത് ഇട്ട് പഠിപ്പിക്കുന്നത് പഠിക്കാം പോകുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല മീൻസ് ഇപ്പം എന്താണ് പറയുക ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഇതിൽ പൈസ കൊടുത്ത് ഡാൻസ് പഠിക്കാൻ പോക്ക് വിടൽ അതൊക്ക ഭയങ്കര ചിലവ് തന്നെയാണ് അവരെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും ചിലപ്പം വീട്ടുകാർ അല്ലെങ്കിൽ കുട്ടി വിചാരിക്കും അച്ഛനെയും അമ്മയേയും കഷ്ടപ്പെടുത്തി എന്താണ് പൈസ വാങ്ങി ഡാൻസ് ക്ലാസ്സിന് ചേരേണ്ട ഓൺലൈൻ ആയിട്ട് നമുക്ക് ഫോൺ ഉണ്ടല്ലോ ഫോണ് കൂടെ പഠിക്കാലോ അല്ലെങ്കിൽ ടിവി ഉണ്ടല്ലോ ഓൺലൈൻ ഇതായിട്ട് പഠിക്കാലാ സമയം ആദ്യം പോലെ അല്ല ഇതിൽ കൂടെ പഠിക്കാലോ എന്നു വിചാരിക്കരുത് കുട്ടിയുടെ ഒരു ആശ്വാസമാണ് ഇത് നല്ല ഒരു സ്വാധീനിച്ചിട്ടുള്ളത് തന്നെയാണ്